ഇപ്പം ഗ്രാമങ്ങളും പട്ടണങ്ങളുമെന്നു പറയുമ്പോൾ മെയിനായിട്ടുള്ളൊരു വ്യത്യാസം എന്താന്നുവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടത്തെ യൂസ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ ഇപ്പം ആരോഗ്യ മേഖലയിലാണെങ്കിൽ തന്നെ പുതിയ പുതിയ ഐക്യുമെൻറ്സ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇപ്പം എല്ലായിടത്തും തന്നെ അവൈലബിൾ അല്ലലോ അതിപ്പോൾ പട്ടണങ്ങളും ഇതുമായിട്ടു ബന്ധപ്പെടുമ്പോൾ അവിടെ കുറച്ചുകൂടി ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പുതിയതായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളും പിന്നെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെക്കൂടി കൂടുതലുണ്ടാകും ഞങ്ങളുടെ നാട്ടിലെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഇപ്പം ഒരു ആരോഗ്യ പ്രശ്നം കാര്യങ്ങളൊക്കെ വരുമ്പം മെയിനായിട്ടും ഇപ്പം വയനാട്ടു കാരാണെന്നുണ്ടെങ്കിൽ അത് വയനാട് ഓൾമോസ്റ്റ് എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് സജ്ജഷൻ ചെയ്യാറുള്ളത് കാരണം അതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്സോ കാര്യങ്ങളോ ട്രീറ്റ്മെന്റിനുള്ള സജ്ജീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അവൈലബിൾ അല്ല വരുന്നത്